ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ അവനിൽ അന്നേരം തന്നെ കുറിക്കപ്പെടുന്നു അവൻ്റെ മരണവും മരണത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വളരെ വ്യത്യസ്തമാണ് നഗരങ്ങളിൽ വളരെ തിരക്കേറിയ ജീവിതമാണ് എന്നാണ് ഗ്രാമങ്ങളിലും തിരക്കേറിയ ജീവിതമാണെങ്കിലും അവിടുത്തെ ചടങ്ങുകൾ വളരെ വ്യത്യസ്തമാണ് ഗ്രാമങ്ങളിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള അതായത് നമ്മുടെ നാട്ടിൽ കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അഥവാ ജാതി അഥവാ മതം ഇതൊക്കെ ഈ ചടങ്ങുകളെ ബാധിക്കുന്ന കാര്യമാണ് ഒരാൾ മരിച്ച് കഴിഞ്ഞാൽ തന്നെ അയാൾ ഇന്ന ജാതിയിൽ പെട്ടതാണ് അപ്പോൾ ആ ജാതിയിൽ അഥവാ അല്ലെങ്കിൽ ആ മതത്തിലെ രീതിയിലാണ് ശവസംസ്കാരങ്ങൾ നടത്തേണ്ടത് സംസ്കാരങ്ങൾ നടക്കുന്നത് പല രീതിയിലാണ് നമ്മൾ മുസ്ലിംസ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കബറടക്കുന്ന രീതിയാണ് അവരുടെ പള്ളിയിൽ കൊണ്ടുപോയി ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ശ്മശാനമാണല്ലോ ആ രീതിയിലടക്കും ക്രിസ്ത്യൻസ് മരിച്ച് കഴിഞ്ഞാൽ അതുപോലെത്തന്നെ അവരുടെ പള്ളിയിൽ കൊണ്ടുപോയി അവർ സ്ഥലം കണ്ടെത്തി അവിടെയാണ് അടക്കുക എന്നാൽ ഹിന്ദുക്കൾ മരിച്ചുകഴിഞ്ഞാൽ അവരിൽ കോമണല്ല പല ജാതിയാണ് അവർക്കിടയിൽ ആ ജാതിയെ കൂടുമ്പോൾ ഇപ്പം ഹിന്ദുക്കൾ തന്നെയുണ്ട് ഈഴവ നായർ വാണിയർ അങ്ങനെ ഒരുപാട് ഒരുപാട് ജാതികളുണ്ട് പല രീതിയിലും പല തരത്തിലുമുള്ള ചടങ്ങുകളാണ് അവർക്കുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾ മരിച്ച് കഴിഞ്ഞ് അയാളെ തൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും തൻ്റെ വീട്ടിൻ്റെ മെയിൻ ഹോളിൽ കിടത്തുകയും തലക്ക് മോളിൽ വിളക്ക് തത്തിച്ച് വെച്ച് കിടത്തി പുതിയ മുണ്ട് പുതിയ വെള്ളമുണ്ട് വിരിച്ച് അതിനകത്ത് അയാളെ കിടത്തിയും തൻ്റെ ബന്ധുമിത്രാദികൾ വന്ന് കാണുകയും അയാൾ കരയുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് തൻ്റെ മക്കളായാലും ഭാര്യയായാലും ഭർത്താവ് ആാരാ വെച്ച് അവരിരുന്ന് കരയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവും പക്ഷെ ചടങ്ങെന്ന് പറയുന്നത് അവരെ സംസ്കരിക്കുക എന്നുള്ളതാണ് പിന്നീട് അവരെ എടുത്തുകൊണ്ട് പോവുക ഒരു തിരുമേനിയായിട്ടുള്ള ഒരാൾ വരിക തിരുമേനിയല്ലാത്ത ക്രിയ ചെയ്യുന്ന ആളെന്നാണ് പറയുക അദ്ദേഹം വരിക ശവത്തിന് മരിച്ച് കിടക്കുന്ന ശവത്തിന് അതിൻ്റ്റേതായ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക പൂവിടൽ നടത്തുക മാല ഇടുക പിന്നെ ബന്ധുക്കൾ വന്ന് നെല്ല് പൂവിട്ട് തൊഴുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഹിന്ദുക്കളെ പൊതുവേയുള്ള രീതിയുള്ള ചടങ്ങുകളെന്ന് പറയുന്നത് പിന്നീട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ അടക്കം ചെയ്യുന്നത് വിറകുകളൊക്കെ കത്തിച്ച് പണ്ട് കാലങ്ങൾ കുഴിച്ചിടുകയാണ് ഇപ്പം അങ്ങനെയല്ല മാവിൻ്റെ വിറകുകൾ കത്തിച്ച് അതിനകത്തേക്ക് അദ്ദേഹത്തെ വെച്ച് പിന്നെ അത് വീണ്ടും അത് പുറത്തേക്ക് ശവത്തിൻ്റെ ഭാഗത്തേക്ക് വിറ മാം വിറകൾ പെറുക്കി വെച്ചു പിന്നെ തുണ്ട് ചിരട്ട പോലുള്ള കാര്യങ്ങൾ വെച്ച് മരിച്ച ആളുടെ മഹാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും തീ കത്തിക്കുന്നത് പിന്നെ അതിനുശേഷം കഴിഞ്ഞുള്ള സഞ്ചയനം പോലുള്ള കാര്യങ്ങൾ നാലാമത്തെ ദിവസം കാണും പിന്നെ പതിനാറെന്നും പറഞ്ഞ കാര്യങ്ങളും കാണും അത് കഴിഞ്ഞ്